തീർച്ചയായും ചിത്രരചനകൾക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാവാറുണ്ട് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മൾ അതിന് ഒരു നല്ല വശം ആലോചിച്ചാൽ മതി എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അത് ഒരു കാര്യത്തെ എതിർത്ത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള ശരി കണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് വരയ്ക്കാൻ ഉള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല അപ്പോൾ നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ ആലോചിച്ച് സമാധാനിക്കുക എന്ന് തന്നെ പറയാം മ് പിന്നെ ഓരോ പ്രതികരണങ്ങൾ നമ്മുടെ തീർച്ചയായും നമ്മളുടെ ചിത്ര രചനയെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കും കാരണം നമ്മള് തെറ്റുകളും കുറവുകളും പറയുമ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ കൂടുതലും നമ്മളുടെ ചിത്രത്തിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക തെറ്റുകൾ പറയുമ്പോൾ നമ്മൾ അതിനെ മാറ്റാനുള്ള ഒരു അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അത് പിന്നീടുള്ള ചിത്ര രചനകളിൽ അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാനുള്ള ഒരു കാര്യം ചിന്തിക്കാ വിമർശങ്ങൾ പറയുമ്പോൾ വിമർശനവും തെറ്റും രണ്ട് രീതിയാണ് വിമർശനങ്ങൾ പറയുമ്പോൾ ഒരുപാട് വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും തീർച്ചയായും നമ്മൾ അതിനെല്ലാം ഒരു നല്ല മറുപടി അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുക എന്ന് തന്നെ ഞാൻ പറയും